വ്യവസായ സംഘാടകർ വളരെയധികം വികസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയുള്ളത് അതിന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്നു പറഞ്ഞാൽ നമ്മളുടെ പരമ്പരാഗത രീതികളായ കൃഷി അല്ലെങ്കിൽ പശു വളർത്തൽ മത്സ്യ ബന്ധനം മുതലായ മേഖലകൾ നിത്യവൃത്തിക്ക് കർഷകർക്ക് വരുമാനം നൽകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ആയതുകൊണ്ട് അവനവന് ആവിശ്യമായ വരുമാനം ലഭ്യമാകുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ഓരോ വ്യക്തികളും മുന്നോട്ട് വരികയാണ് ഈ കാലഘട്ടത്തിൽ ഗവൺമെന്റ് വിവിധങ്ങളായ പദ്ധതികൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് വിഭാവന ചെയ്തു വരികയുമാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ദേശിയ നഗര ഉപജീവന മിഷന്റെ കീഴിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് വ്യക്തികൾ എന്ന നിലയ്ക്ക് ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപ ലോൺ അനുവദിക്കുകയും അതിന് ഏഴ് ശതമാനം പലിശ പലിശയും അതിന് മുകളിൽ വരുന്ന ബാങ്ക് പലിശയ്ക്ക് സബ്സിഡി നൽകുകയും ചെയ്തുകൊണ്ട് പുതിയ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചു വരുന്നു അതുപോലെത്തന്നെ ഗ്രൂപ്പായി വരുന്ന സംരംഭങ്ങൾക്ക് മാക്സിമം പത്ത് ലക്ഷം രൂപ എന്ന നിരക്കിൽ ഈ പറഞ്ഞ ഏഴ് ശതമാനം പലിശ നിരക്കിന് മുകളിൽ വരുന്ന പലിശ സബ്സിഡിയായി നൽകിക്കൊണ്ട് ലോണുകൾ നൽകി വരികയാണ് ഇത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വ്യക്തികൾക്കും ഗ്രൂപ്പ് സംരംഭങ്ങൾക്കും സഹായം നൽകുന്ന വളരെ മനോഹരമായ സ്കീമാണ് അതുപോലെത്തന്നെ വിവിധങ്ങളായ പദ്ധതികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് പ്രധാനമന്ത്രി യുവജന സ്കീമിൻ്റെ ഭാഗമായി പത്ത് ലക്ഷം രൂപവരെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതും അതിൻ്റെ ക്യാപിറ്റൽ സബ്സിഡി നൽകിക്കൊണ്ട് ഗവൺമെന്റ് പുതിയ സ്കീമുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതെല്ലാം പുതിയ സംരംഭങ്ങൾ പുതിയ യുവജനങ്ങൾ വ്യവസായ മേഖലകളിലേയ്ക്ക് കടന്നുവരുന്നതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് നൽകുന്ന ഒരുപാട് സബ്സിഡികൾ ഇത് ആകർഷിച്ച് ജനങ്ങൾ മുന്നോട്ട് വരുന്നതിനു വേണ്ടി ഗവൺമെന്റ് നൽകുന്ന പുതിയ സ്കീമുകളാണ് ഇത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വളരെ സഹായകവുമാണ്